ഈ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞത് അപ്പം കുറച്ച് ദിവസമായതെ ഉള്ളു ഞങ്ങൾക്ക് രണ്ടു പേർക്കും പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ബാക്കിയുള്ള ഡോക്യുമെൻ്റ്സിലെ എല്ലാം സർ നെയിം മാറ്റി എല്ലാം തിരുത്തി വന്നിട്ടുണ്ട് പക്ഷെ പാസ്സ്പോർട്ടിലെ മാത്രം മാറ്റിയില്ല അപ്പോൾ പാസ്സ്പോർട്ടിലെ മാറ്റാൻ വേണ്ടി നോക്കിയിപ്പം അതിനകത്ത് പാസ്സ്ർപോർട്ട് സേവാ കേന്ദ്രത്തിൽ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് മാറ്റാൻ വേണ്ടിയുള്ള അപ്പോൾ നിനക്ക് അറിയാമെങ്കിൽ അതൊന്ന് ഹെല്പ് ചെയ്യുമോ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുമോ ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറ് വല്ലതും തരുമായിരുന്നെങ്കിൽ ഭയങ്കര ഹെല്പ്ഫുൾ ആയിരുന്നു ഇത് മാറ്റാനായിട്ടെ